ഞാനിപ്പം സംസാരിക്കാൻ പോകുന്നത് എ ഗ്രാമത്തിലുള്ള ആരാധന മൂർത്തി ഏതാണ് അവിടുത്തെ പ്രതിഷ്ഠ് എന്താണ് അവരുടെ ആരാധനയിൽ എന്തെല്ലാം രീതികളും ആചാരങ്ങളും ആണ് കാണപ്പെടുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പം സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ എൻ്റെ ഗ്രാമത്തിൽ പ്രധാന ആരാധനാമൂർത്തി ആരാണെന്ന് ചോദിച്ചാൽ അത് ഗണപതി ഭഗവാനാണ് വിഘ്നേശ്വരനാണ് അവിടുത്തെ പ്രധാന ആധാര ആരാധനാമൂർത്തി അപ്പോൾ ഇപ്പോൾ അവിടുത്തെ അവരുടെ ആരാധനാരീതികൾ എന്തെല്ലാം എന്നുവെച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെ നേരത്തെ ഒരു പുലർച്ച സമയം എത്ര മണിയാണ് ഒരു ഏകദേശം നാല് മണിയൊക്കെ ആകുമ്പോഴേക്കും ആ അമ്പലം അവിടുത്തെ നട തുറക്കും എന്നിട്ട് അവിടുത്തെ ദൈവത്തിന് വിളക്കെല്ലാം വെച്ച് അവിടുത്തെ പ്രധാന പ്രതിഷ്ഠ വിഘ്നേശ്വരൻ ആയതുകൊണ്ട് തന്നെ വിഘ്നേശ്വരന് അപ്പവും പലതര പല തരത്തിലുള്ള പ്രസാദങ്ങ പ്രസാദഊട്ടുകളെല്ലാം അ അവർ ദൈവത്തിനുമുന്നിൽ സമർപ്പിക്കും അതിന് അതിനു ശേഷം അവിടെ വിഘ്നേശ്വര ഭഗവാന് പ്രാർത്ഥിച്ചിട്ട് ഒരുപാട് ഭക്തജനങ്ങൾ വരും അവർ പ്രാർത്ഥിക്കും അവർക്ക് പിന്നീട് വിഘ്നേശ്വര ഭഗവാന് വെച്ച വെച്ച പ്രാർത്ഥിച്ച വെച്ച് പൂജിച്ച പ്രസാദങ്ങൾ ബാക്കിവരുന്ന ഭക്തജനങ്ങൾക്ക് അവിടെ കൊടുക്കും അതിനു ശേഷം ഒരു എട്ടര സമയത്തോടുകൂടി അമ്പലത്തിൻറെ നട അടച്ചതിനുശേഷം പിന്നെ പിന്നീട് വൈകീട്ട് ഒരു അഞ്ചര സമയം ആകുമ്പം വീണ്ടും അവിടുത്തെ നട തുറക്കും അപ്പോൾ അപ്പോഴും അവിടുത്തെ ദൈവത്തിന് ആരാധിക്കാനും തൊഴാനും ഒക്കെയായിട്ട് ഭക്തജനങ്ങൾ എൻ്റെ വീടിൻ്റെ അവിടെ അതായത് ആ ഗ്രാമത്തിൽ നിന്നുള്ള പല വീടുകളിൽ നിന്നും പല ആൾക്കാരും വരും പിന്നെ വിഘ്നേശ്വര ഭഗവാനെ പൂജി പൂജിച്ചതിനു ശേഷം പ്രസാദമൊക്കെ കഴിച്ച് കുറച്ച് നേരം ആ അമ്പലത്തിൽ ഇരുന്നതു കൊണ്ട് അവർ പിന്നീട് പിഴി പിരിയും